ഞാൻ ആദ്യം വന്നത്

ആരായിരുന്നു ഇത് എന്തിനു വേണ്ടിയായിരുന്നു ലോൺ ഹൌസിങ്ങ് ലോൺ ആണോ കാർ ലോണാണോ ഓ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ക്ലിയർ ആയില്ല എനിക്ക് ഒന്നുകൂടി പറയുമോ അതെ എന്താണ് ലൈക്ക് വാട്ട് ഡ്രെസ്സിൻറെ എന്നിട്ട് ലൈക്ക് ടെക്സ്റ്റയിൽ ഷോപ്പിൻറെയാണോ ആ ഓക്കെ ഇതെവിടെയാണ് പ്ലേസ് സോറി മീൻസ് വെബ്സൈറ്റിന് നമ്മൾ ലോൺ കൊടുക്കുന്നതല്ല അത് ഒരു ഷോപ്പായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ

ഹോൾസെയിലും റീടൈലും കൂടെ ഒരുമിച്ച് ചെയ്യാനാണോ ഹോൾസെയിലും റീടൈയിലും കൂടെ ഒരുമിച്ച് ചെയ്യാനാണോ ആ ഓക്കെ അപ്പം ആ ആ ഓക്കെ അത് ആ ബിൽഡിങ്ങിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും ആ ബിൽഡിങ്ങിൻ്റെ ഏത് ഇത് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് എത്രയുണ്ടാവും ആയിരത്തി അഞ്ഞൂറ് അല്ലെ അപ്പോൾ ജി എസ് ടി ഒക്കെ കൂട്ടി പത്ത് ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളു

ആ മന്തിലി നാല് വർഷത്തേക്ക് അതിൽ അടക്കണം അത് പലിശയും കൂട്ടി മന്തിലി ട്വൻ്റി തൗസൻ്റ് റുപ്പീസ് വച്ചടക്കണം ആ ഇല്ലെങ്കിൽ വേറെ സ്കീം ഉണ്ട് അത് പെട്ടന്ന് അടച്ച് തീർക്കാം രണ്ട് വർഷം ആ അത് വെക്കാം സ്റ്റാർട്ടപ്പ് ബിസിനസ്സ് അല്ലെ ആ അപ്പോൾ അത് വെക്കാം നാളെ ബാങ്കിലോട്ട് വന്നാൽമതി ഡീറ്റെയിൽസൊക്കെ എടുത്ത് ഫോർമാലിറ്റീസ് ഒക്കെ എടുത്ത് നാളെ വന്നാൽ ഞങ്ങൾ അത് റെഡിയാക്കിത്തരുന്നതാണ് ഓക്കെ താങ്ക് യൂ